പാട്ടു പാടാൻ എനിക്ക് വലിയ ആഗ്രഹം ഒന്നും ഇല്ല എങ്കിലും പാടുന്നവർ ഒക്കെ എന്നോട് പറയാനായിട്ട് പറഞ്ഞാൽ നല്ല ശബ്ദം ഉള്ളവരൊക്കെ പാടാൻ ശ്രമിക്കുക പാടാൻ കഴിവുള്ളവർ ഒരു ഒരു കഴിവും ഒരു അതിനു വേണ്ടി ഒരു ഇത് ഇല്ലാത്തവർ പാടാൻ ശ്രമിക്കാത്തതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം പാട്ടു പാടാൻ പ്രത്യേകമായി ചിലർക്ക് നല്ല കഴിവും വാസനയും ഉണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് പാടാൻ അവസരങ്ങൾ കൊടുത്ത് അവരുടെ പാട്ട് മെച്ചപ്പെടുത്തിയെടുത്താൽ മറ്റുള്ളവർക്ക് കേൾക്കാനും ആസ്വദിക്കാനും ഒരു സൗകര്യവും സന്തോഷവും ഉണ്ടാകും അറിയാൻ പാട്ട് പാടാത്തവരെ പാട്ടു പഠിപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നും നേടാനില്ല അവർ വീണ്ടും അധഃപതിച്ച് പോവുകയേ ഉള്ളു പാട്ട് കൊണ്ടൊരു മെച്ചവും ഉണ്ടാകത്തില്ല പിന്നെ എല്ലാവരും മൂളിപ്പാട്ട് പാടുന്നവരാണ് അങ്ങനൊരു പാട്ടു പോലെ പാട്ടു പാടാൻ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യം അല്ലല്ലോ എല്ലാവരും കുറേശ്ശെ പാടും അത് അവരവരുടെ സ്വരത്തിലും അവരവരുടെ ഈണത്തിലും ഉള്ള പാട്ടുകളാണ് അത് അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ മെച്ചപ്പെടുത്തുകയോ ചെയ്തിട്ടൊന്നും വലിയ കാര്യമൊന്നും ഇല്ല അതിനൊക്കെ ഒരു വാസനയും താൽപ്പര്യവും ഉള്ളവർ ഉണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ട നിർദേശങ്ങൾ കൊടുക്കുകയും ആ അങ്ങനെ ആഗ്രഹം ഉള്ളവരെ കണ്ടുപിടിച്ച് അവർക്കുവേണ്ടി ശ്രമിക്കുന്നതാണ് ഏറ്റവും ഉചിതം അല്ലാതെ പാടാൻ അറിവില്ലാത്തതിനും കഴിവില്ലാത്തവരെയും പിടിച്ച് പാടിപ്പിച്ചിട്ട് വലിയ നേട്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാനില്ല അതിനൊരു മെച്ചവും ഉണ്ടാവത്തില്ല എന്നാൽ കുറച്ച് ആൾക്കാർ അങ്ങനെ അവസരങ്ങൾ കൊടുത്തും അല്ലെങ്കിൽ ശ്രമിപ്പിച്ചും പാടുന്ന കുറച്ചുപേരൊക്കെ വിജയിക്കാറുണ്ട് എങ്കിലും നൂറ് ശതമാനം ഒരു വിജയമായിട്ടതിനെ കൂട്ടാനോ ഒക്കത്തില്ല പാട്ടു പാടുവാൻ നല്ല ശബ്ദം ഉള്ളവരായിരിക്കണം പിന്നെ നല്ല ബ്രീത്ത് കിട്ടുന്നവരായിരിക്കണം അല്ലാത്തവരൊക്കെ പാടാൻ ശ്രമിച്ചാൽ വലിയ മെച്ചമായിട്ട് തോന്നുന്നില്ല എല്ലാവർക്കും ഓരോന്നിനും ഓരോ കഴിവാണല്ലോ പാടാൻ ചിലർക്ക് കഴിവ് കാണും മറ്റുചിലർ മറ്റുപല കാര്യങ്ങളിലായിരിക്കും കഴിവുള്ളത് അവരവരുടെ കഴിവിനനുസൃതമായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും ഉചിതം നമ്മളറിയാൻ പാടില്ലാത്ത തൊഴിൽ അറിയാൻ പാടില്ലാത്ത രീതിയിൽ തല്ലിപ്പഠിപ്പിച്ചിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഏറ്റവും നല്ലത് നല്ല പഠിക്കാൻ അറിവും പാടാൻ കഴിവും ഉള്ള ആൾക്കാരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതും പഠിക്കുന്നതുമാണ് മറ്റുള്ളവർക്കുകൂടി ഒരു കാതിന് ഇമ്പവും ഒക്കെ തോന്നുന്നത് അതുകൊണ്ട് അതായിരിക്കും ഏറ്റവും ഉചിതം ഏഹ് എല്ലാവരേയും പാടിപ്പിക്കുന്നതിലും നല്ലത് അറിയാവുന്നവരെ പാടാനുള്ള പ്രോത്സാഹനം കൊടുത്ത് അവരെ മെച്ചപ്പെടുത്തിയെടുക്കുന്നതാണ് നല്ലത്